കലാകാരന്മാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കലാമണ്ഡലം തന്നെയാണ് ചെറുതുരുത്തിയിൽ ഉള്ളത് അതുപോലെതന്നെ പ്രൈവറ്റ് തലത്തിലും അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ട് പക്ഷെ കലാ ജീവിതത്തിനോട് താൽപര്യമുള്ളവർ ഉണ്ട് എനിക്കങ്ങനെ ഒരു കലാ ജീവിതത്തിനോട് താൽപ്പര്യം കുറവാണ് അഭിലാഷം ഒന്നുമില്ല അല്ലെങ്കിൽ അതിനോട് അത്ര വലിയ നേരം കളയാൻ ഉള്ള ഉദ്ദേശവും ഇല്ല ചിത്രരചന എനിക്കറിയില്ല അതിനോട് യാതൊരു ആഭിമുഖ്യവും ഇല്ല സ്കൂളിൽ ചേരുമ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ വരച്ചു പഠിപ്പിച്ചു അല്ലെങ്കിൽ അതൊരു പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല